മൃഗ പരിപാല നതയില് നമ്മള് പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് നമ്മളുടെ വൃത്തിയും വൃത്തിയാണ് ഏറ്റവും കൂടുതല് പാലിക്കേണ്ട ചില കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മള് മൃഗങ്ങള്ക്ക് കൊടുക്കുന്ന കാലിത്തീറ്റ ആണെങ്കിലും അതില് യൂറിയയുടെ അളവ് കുറവുള്ള കാലിത്തീറ്റകളാണ് നമ്മൾ എപ്പോഴും തെരഞ്ഞെടുക്കേണ്ടത് അതുപോലെ കര്ഷകരെ പിന്തുണയ്ക്കുന്ന കുറച്ചു സര്ക്കാര് പദ്ധതികൾ ഉണ്ട് അതിൽ എല്ലാം നമ്മൾ അംഗമാകുവാന് ചേരേണ്ടതാണ് അതുപോലെ തന്നെ പശുക്കള്ക്ക് ആവശ്യമായ അല്ലെങ്കില് മൃഗങ്ങള്ക്ക് ആവശ്യമായ ഇന്ഷുറന്സുകള് സര്ക്കാരിന്റെ പദ്ധതികളല്ലേ ഈ ഇന്ഷുറന്സ് കമ്പനികള് നമുക്ക് ലഭിക്കുന്നുണ്ടാകു കൂടുതല് ആളുകൾ നമ്മള് ഇന്ഷുറന്സ് തുക ഭീമമാകുന്ന രണ്ടായിരം മൂവായിരം രൂപ ആവുമെന്ന് കരുതി അല്ലെങ്കില് അയ്യായിരം രൂപ ആവുമെന്ന് കരുതി ഒരിക്കലും ചെറിയ ആള്ക്കാര് ഒരിക്കലും ഇതിനെ ഇന്ഷുറന്സ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പശുക്കള്ക്ക് എന്തെങ്കിലും മരണം സംഭവിക്കുമോ എന്തെങ്കിലും പറ്റി സംഭവിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടേ ഒരു വലിയ തുക നഷ്ടമാവുകയാണ് അപ്പം നമ്മുടെ ഒരു ജീവിതമാര്ഗ്ഗം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സര്ക്കാരിന്റെ പദ്ധതികളില് അംഗമാവുകയും അതുപോലെ തന്നെ പശുക്കള്ക്ക് അല്ലെങ്കിൽ മൃഗങ്ങള്ക്ക് എപ്പോഴും ഇന്ഷുറന്സ് എടുക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ പശുക്കള്ക്ക് തീറ്റ നമ്മൾ നോക്കുമ്പോള് കൂടുതലും പുല്ലുകള് നല്കാന് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം നമ്മള് കച്ചികളോ മറ്റോ കൊടുത്ത് കഴിഞ്ഞാൽ കച്ചികളിൽ എപ്പോഴും നമ്മള് മരുന്ന് അടിക്കുന്ന നെല്ലണ്ണ നെല്ലിന് മരുന്ന് അടി വിഷാംശം എപ്പോഴും കാണുന്നത് ഉണങ്ങിയെടത്ത് അതിനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് കൂടുതലും നമ്മള് പച്ചപ്പുല്ലുകള് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം